ആ ഹലോ ആ ഹലോ പറഞ്ഞോളൂ ആ അതെയതെ ആ ഏത് പഞ്ചായത്താണോ വാർഡോ ആ ആ ആ വാ വാർഡേതാണ് ആ നിങ്ങളുടെ മെമ്പറാരാണ് അതെ നിങ്ങൾ ഒരു അപേക്ഷ വെക്കണം കേട്ടോ ആ അപേക്ഷ എത്രയും പെട്ടന്ന് വെക്കണം നിങ്ങളെ നിങ്ങൾ അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എട്ട് പേര് ഇവിടെ അപ്ലൈ ചെയ്തു അവരുടെ അപേക്ഷ ഇവിടെ കിടപ്പുണ്ട് ഇച്ചിരി താമസം എടുക്കുമായിരിക്കും കേട്ടോ ആ എല്ലാവരും ഇതൊക്കെ എല്ലാവരും ഇതൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഏതായാലും അപേക്ഷ വെക്ക് കേട്ടോ അപേക്ഷ വെക്കണം പിന്നെ ഇത്തിരി ആ രേഖകളൊക്കെ അറിയാവല്ലോ അത് ഇച്ചിരി പാടെ കരം അടച്ച രസീത് സ്ഥലത്തിൻ്റെ സ്വന്തം ഓ സ്ഥലമാണെന്നുള്ളതിൻ്റെ തെളിവ് ഏതെല്ലാം വേണം പിന്നെ ഇച്ചിരി പൈസ ചിലവാകുന്ന കാര്യമാണ്

ആ ആ അതുകൊണ്ട് ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം വെച്ച് ഒരു അപേക്ഷ വെക്ക് കേട്ടോ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ ഓക്കെ ആ